ഹലോ നമസ്കാരം

നിങ്ങള്ക്ക് എത്ര സെൻറ് എത്ര സെൻറ്റാണ് മുറ്റം വേണ്ടത് ആ ഉണ്ട് മണല് വേണം പിന്നെ പാറപ്പൊടി പിന്നെ പിന്നെ ബേബി മെറ്റല് ആവശ്യമായ സാധനങ്ങള് വേണം അതെ വഴിക്ക് അത് ലോക്ക് മറ്റെ കട്ടകളില്ലേ ആ അതിന് യൂസ് ചെയ്യുന്ന സാധനമാണ് നല്ല കമ്പി ടി ആര് എസിന്റെ ഉണ്ട് ഓക്കെ ഉണ്ടുണ്ടുണ്ട്

ഉണ്ടുണ്ട് ആ നോക്കാം നോക്കാം നോക്കാം